ഇന്ത്യ എന്ന മഹാരാജ്യത്തില് ഒരു കൊച്ചു നാടായ കേരളത്തിൻ്റെ ഔദ്യോഗികമായ ഭാഷയാണ് മലയാളം എന്നുള്ളത് കേരളത്തിനു പുറമേ കേന്ദ്രഭരണപ്രദേശങ്ങളായ ലക്ഷദീപുകൾ അതുപോലെ തന്നെ മാഹി അതുപോലെ തമിഴ്നാടിലെ ഇന്ത്യ കേരളത്തിൻ്റെ അതിർത്തികളിലെ ചില തമിഴ്നാട് പ്രദേശങ്ങളെല്ലാം ഈ ഭാഷ സംസാരിച്ചിരുന്നു ദ്രാവിഡ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ഒരു ഭാഷയാണു മലയാളം എന്നുള്ളത് തുഞ്ചത്തെഴുത്തച്ഛനെ പോലത്തെ ഒരുപാട് ആളുകളാണ് അതിനു ചുക്കാൻ പിടിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ മലയാള സാഹിത്യം നോക്കുകയാണെങ്കില് ലോകത്തിൻ്റെ നെറുകയിൽ മലയാള സാഹിത്യം ഒരുപാട് ചലനങ്ങളും മുന്നേറ്റങ്ങളും കാഴ്ച വച്ചിട്ടുണ്ട് ഈ ഭാഷയിൽ ഒരുപാടു സാഹിത്യങ്ങൾ സിനിമകൾ പാട്ടുകൾ കവിതകൾ അവരങ്ങനെ ഒരുപാടു രചയിതാക്കൾ ഒരുപാടു കവികൾ ഒരുപാടു കഥാകൃത്തുക്കൾ ഒരുപാടു ലേഖകർ എല്ലാം ഈ ഭാഷയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് നമുക്കെടുത്തു പറയുകയാണെങ്കില് ഒ എൻ വി കുറുപ്പ് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഭാഷപിതാവ് കൂടിയായ തുഞ്ചത്തെഴുത്തച്ഛന് അതുപോലെ ഒരുപാടു സാഹിത്യകാരന്മാര് ഈ ഭാ ഭാഷേന്റെ ഭാഷയ്ക്ക് ഭാഷയിൽ വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടം മലയാള ഭാഷയില് ഇതിലെ നോവലുകളും അതുപോലെ തന്നെ പാട്ടുകളുമാണ് നമുക്കറിയം മലയാള ഭാഷ ഒരുപാട് അക്ഷരമാലകളുണ്ട് മറ്റുള്ള ഭാഷകളെ സംബന്ധിച്ച് സംബന്ധിച്ചേടത്തോളം മലയാളം അക്ഷരമാല മറ്റുള്ളവർക്കു പഠിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള ഒരു ഒരു കലം കലയുമായി ബന്ധപ്പെട്ട രീതിയിലാണ് മലയാളത്തിൻ്റെ അക്ഷരമാലകളെല്ലാം ഒരു ചിത്രമോഡൽ മറ്റുള്ള ഭാഷകളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു അക്ഷരമാലയാണ് മലയാള ഭാഷയ്ക്കുള്ളത് അതെനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഒരു ചിത്ര മോഡലിലുള്ളൊരു ഭാഷ അതുപോലെ അതിൻ്റെ ഉച്ചാരണ രീതികള് വളരെ മറ്റുള്ള ഭാഷകളില്നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഉച്ചാരണ രീതികൾ അതുപോലെ തന്നെ ആ മലയാള ഭാഷയുടെ പ്രത്യേകതകള് പറയുമ്പോള് അതിലുള്ള ഓരോ കണ്ടെന്റുകളും ഒരു കവിത എഴുതുമ്പോൾ ആ കവിത എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് അതിൻ്റെ എഫക്റ്റ് അവർക്ക് ഉണ്ടാകും മറ്റുള്ള ഭാഷകളിൽനിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഭാഷയാണ് നമ്മുടെ ഈ മലയാളം എന്നുള്ളത്